ആ ഹലോ അതെ

എന്ത് എന്ത് ചായയാണ് ചായ മസാല ചായ കട്ടൻ ചായ പാൽ ചായ ഹോർലിക്ക്സ് ബൂസ്റ്റ് കോഫി ലഞ്ച് ഇത് ഇന്ന് ലെമൺ ചായ എല്ലാ ചായയും ഉണ്ട് കടി നെയ്യപ്പം പിന്നെ കൽത്തപ്പം ഉണ്ണിയപ്പം പിന്നെ സമോസ പക്കവട ബജി ഈ സുഖിയൻ അങ്ങനെ കുറേ കടൈ കടി ഉണ്ട് ഇല്ല അങ്ങനത്തെ കടിക്കൊക്കെ പത്ത് രൂപ കട്ലറ്റ് ചിക്കൻ റോൾ പഫ്സ് അങ്ങനത്തേതിനൊക്കെ പതിനഞ്ച് അങ്ങനെയാണ് മസാല ചായയ്ക്ക് ഇരുപത് ഹോർലിക്സിനും ഇരുപത് ബൂസ്റ്റിനും കൊയ് ഇരുപത് മറ്റേ ചായയ്ക്കൊക്കെ പത്ത് അമ്പത് എണ്ണമോ

ആ പിന്നെ ആ ഏതൊക്കെയാണ് വേണ്ടത്

മുപ്പതും കട്ലറ്റ് ആണോ വേണ്ടത് മുപ്പ് മുപ്പതും കട്ലറ്റ് ആണോ വേണ്ടത്

അൻപത് മസാല ചായയും അൻപത് ഹോർലിക്സും അല്ലേ പിന്നെ വേറെ എന്തെങ്കിലും ആ ഓഫർ ഇല്ല എന്നാൽ ആയിക്കോട്ടെ ഞാനേ വൈകുന്നേരം ആവുമ്പോഴത്തേന് എത്തിച്ചുതരാം കേട്ടോ ഇപ്പം കുറച്ച് തിരക്കാണേ കടയിലേ ആ എന്നാൽ ആയിക്കോട്ടെ